ഇത് കോട്ടയത്ത്ന്നാണ് ഞാൻ ജോർജാണ് നിങ്ങളുടെ വണ്ടി ബുക്ക് ചെയ്തിരുന്നല്ലോ ഞങ്ങളതിൽ അയച്ചുതന്ന ആ ഡ്രൈവർ കേട്ടോ നല്ല മര്യാദക്കാരൻ നല്ല സൗമ്യനായ ഒരു മനുഷ്യനാണ് വളരെ സാവധാനത്തിലാണ് വണ്ടി ഓടിച്ചത് ഖട്ടറിൽ ഖട്ടറൊക്കെ ഒഴിവാക്കി നല്ലരീതിക്കാണ് പുള്ളി ഡ്രൈവ് ചെയ്തത് നമുക്ക് ആവശ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാനും അതേപോലെ തന്നെ നല്ല ഹോട്ടലുകളിൽ കൊണ്ടുനിർത്തി ഞങ്ങളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിള്ളേർക്കൊക്കെ പിള്ളേരും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു അവരെ ആണേലും ഈ ഖട്ടറൊക്കെ ഒഴിവാക്കി നല്ല നല്ല ഡ്രൈവിങ് ആയിരുന്നു പുള്ളിയെപ്പോലുള്ള ഡ്രൈവർമാരാണ് ആവശ്യം നിങ്ങൾ ഇതേപോലെ ഉള്ളവരെ വേണം വെക്കാൻ നമുക്കിനിയും കുറെ ഓട്ടങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കീ ഇയാൾ ഇയാളെത്തന്നെ തന്നാൽ മതി ഡ്രൈവറായിട്ട് കാരണം അവരുടെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനവർ ചെറിയ ആ സന്തോഷത്തിനൊരു ചെറിയ ടിപ്പ് കൊടുത്തിട്ടുണ്ട് പുള്ളി ആവശ്യപെട്ടിട്ടൊന്നും അല്ല നമ്മുടെ ഒരു സന്തോഷം പുള്ളി ഇനിയും പുള്ളിയെ തന്നെ വിട്ടുതന്നാൽ മതി മക്കൾ വന്നു കഴിയുമ്പോൾ അവരുവായിട്ടിനിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ പോകാനുണ്ട് അടുത്ത അടുത്തമാസം പകുതിയോടു കൂടി പോകണം അപ്പം നമുക്ക് വണ്ടി വേണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഹോദരനും കൂടെ വേണം അവിടെന്ന് അപ്പം ഇതുപോലുള്ള നല്ല ഡ്രൈവർമാരെ അയച്ചു തരുവാണേലെ നല്ല കാര്യമായിരിക്കും അയാളെ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഡ്രൈവറാണ് അയാളോട് പ്രത്യേകം നമ്മുടെ ഈ അഭിനന്ദനം ഒന്ന് അറിയിക്കേം കൂടി ചെയ്തേക്കണം കേട്ടോ ഓക്കെ